ഹലോ ഡോക്ടറല്ലേ എനിക്ക് ഭയങ്കര പനിയും തലവേദനയും മേലുവേദനയും ഒക്കെയാണ് രണ്ടുമൂന്നുദിവസായി ആ മഴ നനഞ്ഞിരുന്നു കുറച്ച് ആ അത് വീട്ടില് ഉമ്മാക്കും ആങ്ങളക്കും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവര് അവരെ ഗുളിക ഉണ്ടായിരുന്നു അതെടുത്തു കുടിച്ചിരുന്നു പക്ഷേങ്കില് ഒരു മാറ്റമൊന്നും ഇല്ല ആ അവർക്ക് കുറവുണ്ട് മ് ഇല്ലില്ല ചെറിയ കുട്ടിയുണ്ട് കുട്ടിക്കും ചെറുതായിട്ട് തുടങ്ങി വരുന്നുണ്ട് പനി വരുന്നുണ്ട് ജലദോഷമൊക്കെയാണ് മ് ആ പാരാസെറ്റമോളാ രണ്ടെണ്ണം രാവിലെയും രാത്രിയായിട്ട് രണ്ടെണ്ണം കഴിച്ചു ഇല്ലില്ല സൗഫിന ഇല്ലില്ല കുഴപ്പമൊന്നുമില്ല ആ ആ പറ്റും മ് അപ്പോൾ നാളെ വന്നാൽ മതി അല്ലെ എന്നാൽ ബുക്ക് ചെയ്തോ ഓക്കേ ഓക്കേ ആ എത്താൻപറ്റും മ് ആ അവിടെ കുട്ടികളെ കാണിക്കാൻ പറ്റുമോ കുട്ടികളുടെ ഡോക്ടറെ കാണിക്കാൻ പറ്റുമോ ആണോ ആ ആ ആ ആ ഇല്ലില്ല വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല പിന്നെ ചെറിയ തൊണ്ടവേദന ഉണ്ട് ആ ആ

ആ ആ

ആ ആ വരുമ്പോൾ പറഞ്ഞാൽ മതി അല്ലെ

ആ ആ ആ ഓക്കേ ആ ആ ഓക്കേ ഓക്കേ മ് മ് ബുക്ക് ചെയ്ത നമ്പറങ്ങാനും ഉണ്ടോ ടോക്കൺ നമ്പർ അങ്ങനെ എന്തെങ്കിലും ആ ആ ആ